പുസ്തകങ്ങൾ സാധാരണ ഗതിയിൽ ഞാൻ ഇൻറർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് വാങ്ങാറ് ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര എന്നുള്ള പറയുന്ന സൈറ്റിൽ ഓഫ്ഫർ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സെറ്റ് ബുക്ക് കിട്ടുന്ന രീതിയിലത്തെ ഓഫറുകൾ വരുമ്പോഴാണ് സാധാരണ ഗതിയിൽ ഞാൻ ബുക്കുകളൊക്കെ വാങ്ങാറുള്ളത് എനിക്ക് സ്പെഷ്യൽ എഡിഷൻ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഓരോ ബുക്കും സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യാറ് ഒന്നല്ലെങ്കിൽ ഒരു കാര്യം എന്നെ എല്ലാ ബുക്കും പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലായിട്ട് അപ്പോൾ ചില ബുക്കുകൾ നമ്മളെ ഒത്തിരി ഹെല്പ് ചെയ്യുകയാണ് ചെയ്യ ചില ബുക്കുകൾ നമുക്ക് വേറൊരു രീതിയിലത്തെ ചിന്താഗതി നൽകും ചില ബുക്കുകൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് തന്നെ തോന്നിപ്പിക്കും ചില ബുക്കുകൾ ഓതർ സ്വന്താ സ്വന്തം സ്വപ്നങ്ങളോ അല്ലെങ്കിൽ സ്വന്തം വിശ്വാസങ്ങളോ അല്ലെങ്കിൽ സ്വന്തം ജീവിത കഥയോ ആണ് നമുക്ക് പങ്കുവച്ച് തരുന്നത് അപ്പോൾ നമ്മളതിലൊരു ഒരു വ്യൂവർ മാത്രമായിട്ട് നിന്നു പോവും പക്ഷേ ചില കഥകൾ നമ്മളെ ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ കഥകളാണ് നമ്മടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവുമധികം അപ്ലേ ചെയ്യാൻ നോക്കുന്നത് എനിക്ക് സ്പെഷ്യൽ എഡിഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഇപ്പഴത്തെ ബുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ദി മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി ബൈ റോബിൻ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് അത് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നിമിഷങ്ങളായി പക്ഷേ ഞാനാ ബുക്ക് വായിക്കുമ്പഴും എപ്പഴും ഞാൻ ഒരു കാര്യമാണ് വിശ്വസിക്കാറ് ഞാൻ വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണം കഴിച്ചതിനു ശേഷം എൻ്റെ ബുക്കും മുടി തുടക്കുന്നതിന് സ് ഒപ്പം തന്നെ ഞാന് ആ ബുക്കും പിടിച്ചിട്ടവിടെയിരിക്കും ആ ബുക്കും പിടിച്ചിട്ടവിടെ ഇരുന്നിട്ട് ഞാൻ അതിനെ പറയുന്നത് എൻ്റെ ഡെയിലി ടൂസ് ഓഫ് ഗുഡ്നെസ്സ് എന്നാണ് കാരണം ആ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രക്കധികം നല്ല രീതിയിലത്തെ ഇൻഫൊർമേഷനാണ് കിട്ടുന്നത് ഇൻ്റർനെറ്റാണ് ഇൻകേസ് ഞാൻ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമല്ല ലഭിക്കുക എനിക്ക് വേറിട്ടൊരു അനുഭവമാണ് ലഭിക്കുക ഇൻ്റർനെറ്റ് ഇൻകേസ് ഞാൻ കുറേ നേരം സ്ക്രോൾ ചെയ്തോണ്ടിരിന്നിട്ടുണ്ടെങ്കില് അവസാനത്തെ നിമിഷങ്ങളിലൊക്കെ എനിക്ക് എനിക്ക് വയ്യാ എന്നുള്ളൊരു ഫീലാണ് പക്ഷെ ഞാൻ ഇൻകേസ് എൻ്റെ ബുക്കാണ് വായിക്കണേച്ചാൽ ഹായ് വൗ അമ്മേ എന്താ ഇത് വളരെ നല്ലൊരു ബുക്കാണല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഒരു ഹാപ്പിനസ്സ് സന്തോഷവും സുഖവുമൊക്കെ ലഭിക്കുന്നു അവസാനത്തെ നിമിഷങ്ങളിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാ ഇതും മാറ്റിവെച്ചിട്ട് ബുക്കെന്നുള്ള ഒരു ഇത് ബുക്ക്സിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ എഡീഷൻ ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളതിലൊന്നാണ് ഈ ഈ ബുക്കെനിക്ക് എനിക്ക് വളരെയധികം ഇഷ്ടമാട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ദി മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി അതല്ലാതെ എനിക്കിഷ്ടമുള്ള ബുക്കാണ് ദി ലിമിറ്റ്ലെസ്സ് അതിൻ്റെ ചട്ട എനിക്ക് നല്ല ഭംഗി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് എൻ്റെ ആ ബുക്ക് എൻ്റെ ബ്രെയിനിൻ്റെ ഒക്കെ കപ്പാസിറ്റിസ് എങ്ങനെ എനിക്ക് മാക്സിമം ചെയ്യാമെന്നാണ് പഠിപ്പിച്ചു തരുന്നത് ഇപ്പോൾ ആ ബുക്ക് തന്നെയാ ഞാൻ ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്നത് വേറെയും പല ബുക്കുകളുണ്ട് ദ ഡോട്ടർ ഫ്രം എ വിഷിങ് ട്രീ ബൈ സുധാ മൂർത്തി സുധാ മൂർത്തി എന്ന് പറയുന്നൊരു വ്യക്തി എഴുതിയ ആ ബുക്കും എനിക്ക് വളരെ അധികം ഇഷ്ടമുള്ളതാണ് കുറേ പുതിയ ഷോർട്ട് സ്റ്റോറീസും നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇന്ത്യൻ ഹെറിറ്റേജിനെ തന്നെ നമുക്ക് തന്നെ പഠിപ്പിച്ചു തരുന്ന ഒരു ബുക്കായിട്ടാണ് എനിക്ക് അത് തോന്നിയിട്ടുള്ളത് പവർഫുൾ വുമൺ വുമണിൻ്റെ സ്ത്രീകളുടെ ശക്തിയാണ് ആ ബുക്കിലൂടെ അവര് കാണിച്ചു തരുന്നത് എൻ്റെ ആ ഒരു ബുക്കെനിക്ക് ഒത്തിരി ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈശ്വരന്മാരെല്ലാം എനിക്ക് പണ്ടുമുതലേ ഇഷ്ടവും വിശ്വാസവും ഉള്ള സ്ഥിതിക്ക് അങ്ങനത്തെ ഒരു ബുക്ക് എനിക്ക് ഭഗവതികളുടെ കടാക്ഷങ്ങളും കഥകളും ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും അതിൻ്റെ ചട്ടയും കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു അപ്പോൾ ബേസിക്കലി എനിക്ക് സ്പെഷ്യൽ എന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ രണ്ട് ബുക്കുകൾ മാത്രം ആണ് ഒരെണ്ണം ദ ഡോട്ടർ ഫ്രം ഏ വിഷിങ് ട്രീ ബൈ സുധാ മൂർത്തി അതിൻ്റെ ചട്ടകളും നല്ല ചന്തമാണ് അതിനുശേഷം പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ബുക്കാണ് ലിമിറ്റ്ലെസ്സ് ബൈ ജിം ക്വിക് സാധാരണ ഗതിയിൽ ഈ ഇലക്ട്രോണിക്സ് മീഡിയ വഴി ബുക്കുകൾ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടാറില്ല അതെൻ്റെ ശരീരത്തിനെ ഏതെങ്കിലും രീതിയിലും ഹാം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതോടൊപ്പം തന്നെ ബുക്കെന്ന് പറയുമ്പോൾ അത് കയ്യിൽ പിടിച്ച് സംസാരിക്കുന്ന അത് കയ്യിൽ പിടിച്ച് വായിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെയൊപ്പം ഒരു കണക്ഷനുണ്ടാക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് കാരണം തന്നെയാണ് ഞാൻ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത് ആ സാധാരണ ഗതിയിൽ ബുക്ക് എനിക്ക് കയ്യിൽ പിടിച്ച് വായിക്കാനാണിഷ്ടം അപ്പം ഞാന് അങ്ങനെ ഇ ബുക്കും കാര്യങ്ങളൊന്നും അധികം ഡൗൺ ലോഡ് ചെയ്യാതെ ആമസോണിൽ നിന്ന് ഹാർഡ് കോപ്പീസ് തന്നെയാണ് വാങ്ങാറ്